ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സിനെയാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കുക കാരണം അവര് അവരുണ്ടെങ്കിലേ ഞാനുള്ളു അവർക്ക് വേണ്ടിയാണു ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ വില കൊടുക്കുന്നത് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും വേണ്ടിയാണ് കാരണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് അവര് വേണ്ടി മാത്രാ അവര് മാത്രാണ് എന്നെ ഇത്രയും വളർത്തി വലുതാക്കി ഇത്രയും പഠിപ്പിച്ച് ജോലി ആക്കി തന്നത് എൻ്റെ വീട്ടുകാര് അപ്പോൾ അവര് അവർക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും മാത്രമെ ഞാൻ വില കൊടുത്തിട്ടുള്ളു ബാക്കിയുള്ള എല്ലാത്തിനും സെക്കണ്ടറി ആണ്